ഇപ്പോൾ കോവിഡ് നമ്മുടെ രാ നമ്മുടെ നാട്ടിലൊക്കെ നല്ല രീതിയിൽ ബാ ബാധിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരാൾക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ലോക്ക്ഡൗൺ ആക്കിയിടും പിന്നെ നമുക്ക് ഇവിടുന്ന് പുറത്ത് ഇറങ്ങാനോ ഇപ്പോൾ കട മൊ മുതൽ എ ടു സെഡ് സാധനങ്ങളൊക്കെ അടച്ചിടും നമുക്കിപ്പോൾ ഒരു സാധനവും ഇവിടെ തുറക്കാറുണ്ടായിരുന്നില്ല പിന്നെ നമുക്കെവിടേയും യാത്ര ചെയ്യാനും പറ്റുന്നില്ല നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം വീടിന് പുറത്ത് പോലും നമ്മളോട് ഇറങ്ങരുതെന്നാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഇത് ബാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം യാത്ര സൗകര്യമോ നമുക്ക് ഇപ്പോൾ ഭക്ഷണ സാധനങ്ങളോ ഒന്നും എത്തിച്ചേരാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു എല്ലാവർക്കും കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളോട് ഇവിടുന്ന് ഇറങ്ങരുതെന്ന് വരെ അടക്കം പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇവിടേക്ക് ഭക്ഷണ സാധനങ്ങൾ പോലും എത്തിപ്പെടാൻ എന്താണ് പറയുക എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയായിട്ടാണ് ഉണ്ടായിരുന്നത് പിന്നെ വിനോദസഞ്ചാരങ്ങളെല്ലാം ഫുൾ ആയിട്ട് അടച്ചിടുവാണ് ചെയ്തത് അപ്പം അവർക്കുള്ള നമക്കിപ്പോൾ പാ എന്താണ് പറയുക വീട്ടിലിരിക്കുന്നവർക്ക് പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും കോവിഡ് വ വല്ലാത്തൊരു രീതിയിലാണ് നമ്മളെ എല്ലാവരെയും ബാധി ബാധിച്ചത് നമുക്കിപ്പോൾ എവിടെയും ട്രാവൽ ചെയ്യാനും പറ്റില്ല ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്